എന്റെ പേര് രഞ്ജിത് എന്നാണ് അപ്പോൾ ഞാൻ മറ്റേ മാനന്തവാടിയിൽ ആണ് എൻ്റെ വീടുള്ളത് അപ്പം എന്താ പറയാ താഴ്ന്ന ഒരു ജാതിയിൽപ്പെട്ട ഒരാളാണ് ഞാൻ അപ്പോൾ അങ്ങനെയാണ് ഞാൻ അതിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു നിലയിൽ എത്തിയത് അപ്പം നല്ല രീതിയിലുള്ളൊരു മുന്നേറ്റമൊക്കെ കാഴ്ച വെക്കാൻ വേണ്ടി പറ്റി ഇപ്പം ഒരു നല്ലൊരു ജോലിയും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ അത് അതുകൊണ്ടാണ് എൻ്റെ കുടുംബവും എല്ലാ കാര്യവും മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നല്ല രീതിയിലുള്ളൊരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ സമൂഹത്തിലാണെങ്കിലും എല്ലാ കാര്യങ്ങളിലാണെങ്കിലും എനിക്ക് ഓരോന്നിലും എത്തിപ്പെടാനുള്ള ഓരോ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് എല്ലാത്തിലും എത്തിപ്പെടാനും നല്ലൊരു വരുമാനം നേടാനും എനിക്ക് സാധിക്കുന്നുണ്ട് പിന്നെ എൻ്റെ കുടുംബം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനുണ്ട് അമ്മയുണ്ട് അനിയത്തിയുണ്ട് എല്ലാ കാര്യങ്ങളും പിന്നെ ബാക്കി പശു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെയുണ്ട് അപ്പം എല്ലാം കൊണ്ടും നല്ലതാണ്